വാർത്തകൾ ഞാന് എല്ലാ രീതിയിലുള്ള വാർത്തകളും ഞാൻ കാണാറുണ്ട് വിനോദവും സാമൂഹ്യപരമായ വാർത്തകളും രണ്ടും മാറി മാറി ഞാന് വച്ച് കാണാറൊക്കെയുണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങള് അധികം താല്പര്യമില്ലെനിക്ക് കാണാ കാണാൻ തന്നെ അതിനോട് അധികം ഞാൻ ഉൾകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊൾ ആ വാർത്തകൾ പരമാവധി ഞാൻ കാണാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ല വാർത്തകളാണ് നാം കാണുന്നത് അത് വിനോദങ്ങളായാലും എക്കെ നല്ല രീതിയിൽ ചില വാർത്തകൾ നമു നല്ല രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ചിലത് മാത്രം നമുക്കത് പോസിറ്റീവ് ഇതില് വരുത്താം ഉൾകൊള്ളാൻ കഴിയുന്ന ബാക്കിയൊക്ക എല്ലാ ഇത് നെഗറ്റിവിറ്റി കൂടി ന്യൂസ് കേട്ട് നമുക്ക് നല്ലൊരു തൃപ്തി വരുന്ന രീതിയിലായിരിക്കും നമ്മള് കേട്ടോണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രാവശ്യം എന്നു പറയുമ്പോൾ വാർത്തകൾ നല്ലതാണ് നമ്മള് എല്ലാ വാർത്തകളും വിനോദായാലും സാമൂഹികപരമായാലും എല്ലാ വാർത്തകളും നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കണം എന്നാലാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടണെങ്കിൽ വാർത്തകൾ തന്നേ എപ്പോഴും കേട്ടോണ്ടിരുന്ന മാത്രമേ അതിൻ്റെ അറിവുകൾ കിട്ടണമെങ്കിൽ അത് ചെയ്തോണ്ടന്നെ ഇരിക്കണം